അതെയതെ ഗുഡ് മോണിംഗ് ഗുഡ് മോണിംഗ് സാർ ആ അതേ സാർ അതിന് വേണ്ടിയായിരുന്നു ഞാൻ അപേക്ഷിച്ചിരുന്നത് ഓക്കെ ശരി സാർ താങ്ക് യൂ വളരെ നന്ദി

ഓക്കെ ആ ഓക്കെ സാർ ഇതിന് വേണ്ടി എനിക്ക് ആ ഓക്കേ

ആ ശരി ആ തീർച്ചയായിട്ടും ഞാൻ ഇത് പുതുതായിട്ടാണീ ജോലീലേക്ക് ഞാനന്ന് അപേക്ഷിച്ചിരുന്നത് ഏതായാലും താങ്കൾക്ക് എന്നെ സെലെക്ററ് ചെയ്തു എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കൂടുതലായിട്ട് ഈ ജോലിയെ കുറിച്ച് കുറച്ചൂടെ വ്യക്തത എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഏത് ഏരിയായിലാണ് എനിക്ക് പ്രധാനമായും ജോലിക്ക് പോകേണ്ടി വരുന്നത് ഏത് എന്താണ് ഞാൻ ടാർജറ്റായിട്ട് ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നെ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഉവ്വ് ഉവ്വ് അതെയതെ അതെ

ഓക്കെ ആ ശരി മൂന്ന് മിനിട്ട് ഇലായിട്ട് ആ ഇല്ല ഇല്ല സാർ ആ ഇപ്പം മൂന്ന് മിനിട്ട് സംസാരിക്കണം പറഞ്ഞോളൂ പറയു സാർ ഓക്കെ

ഓക്കെ സാർ

ഓക്കെ ഓക്കേ സാർ ഓക്കെ ഓക്കെ ഓക്കെ സാർ ആ ഞാൻ ചോദിക്കുന്നുണ്ട് സാർ ഏതായാലും ഇതിന് വേണ്ടി എനിക്ക് താൽപര്യമുള്ളൊരു മേഖലയ്ക്ക് തന്നെ എനിക്ക് ജോലി കിട്ടിയതിനും നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിലും എനിക്ക് സന്തോഷമുണ്ട് ആ തീർച്ചയായും നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ജോലി ചെയ്യാൻ ശ്രമിക്കേം എൻ്റെ ഒരു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടാർജെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കയും ചെയ്യുമെന്ന് ഞാനും വാഗ്ദാനം ചെയ്യുന്നു താങ്ക് യൂ സാർ